കുട്ടികൾ പുതിയ കളികൾ എന്നു പറഞ്ഞാൽ കളികൾ ഇന്ന് ലോകത്ത് ഒരുപാടുണ്ടെങ്കിലും കുട്ടികൾ പഴയകാലത്തും ഇപ്പോഴും കളിക്കുന്ന ഒരു കളികൾ തന്നെയാണ് ഫുട്ബോൾ ഫുട്ബോള് വിട്ടൊരു കളിയും ഇന്ന് ലോകത്തുള്ള ഒരു മനുഷ്യനും കളിക്കുന്നില്ല പല സ്പോർട്സുകൾ ഉണ്ടെലും വളർന്നു വരുന്ന ഇപ്പോ ഏകദേശം എല്ലാവരും ഫുട്ബോളിൽ തന്നെയാണ് ഇൻറ്റ്റസ്റ്റിങ് ആയിരിക്കുന്നത് പിന്നെ ഇന്നത്തെ കാലത്തൊരുപാട് കുട്ടികൾ മൊബൈൽ അഡിക്ഷൻ ആണ് അതിൽ ഒരു പാട് കളികൾ കളിക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ ബെറ്റർ ബെറ്റർ റിയൽ റിയലായിട്ട് ഇറങ്ങി കളിക്കുക അതാണ് അല്ലെ ഒരുപാട് ഗെയിമുകൾ പുതിയ പുതിയ ഗെയിമുകൾ വന്നോണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എക്കാലത്തെയും പിടിച്ചിരുത്തുന്ന ഗെയിമുകളാണ് ഫുട്ബോള് ക്രിക്കറ്റ് ഹോക്കി വോളിബോൾ എന്നൊക്കെ ഉള്ളതൊക്കെ ഇന്നത്തെക്കാലത്ത് എല്ലാടം കിട്ടുന്ന ഗെയിമുകൾ തന്നെയാണ് പക്ഷെ കുട്ടികൾ മാറുന്നുണ്ടായിരിക്കാം മൊബൈൽ മൊബൈലിലേക്ക് അഡിക്ഷനായിക്കൊണ്ടിരിക്കാം പക്ഷേ എല്ലാവരും അല്ല പലരും ഫുട്ബോളിനെയും ക്രിക്കറ്റിനെയും ഒക്കെ ഇഷ്ടപ്പെട്ട് നടക്കുന്നവരുണ്ട് ദ ബെസ്ററ് എവർ ഗെയിം എന്നുവച്ചാൽ അത് ഫുട്ബോൾ തന്നെയാണ് അതിനോടൊരു മാറ്റൊന്നില്ല അതിപ്പോ ഏത് കുട്ടിയോട് ചോദിച്ചാലും അവൻ ഫുട്ബോളിനെ തന്നെ പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്